ടീച്ചർ അ ഇന്നലെ നമ്മൾ കുറച്ച് അടവുകളൊക്കെ പഠിച്ചില്ലേ ഇന്ന് എന്തൊക്കെ അടവുകളാണ് പഠിക്കുന്നത് പഠിക്കുന്നത് ആ ആ അപ്പോൾ അതിൻ്റെ പ്രേത്യേകത എന്താണ്

അപ്പോൾ ഇന്നലെ അത് ശരി അപ്പം ഇന്നലത്തെ ബാക്കി ഇനി ഉച്ചക്ക് ഇന്ന് പഠിക്കുന്നുണ്ടോ ആ അതെ അതേ ആ അപ്പം ആ ഓക്കെ പിന്നെ ആ ഏഴ് രാഗങ്ങളുടെ ബാക്കി രാഗങ്ങൾ ഏതൊക്കെയാണ് അതിൽ

ആ അതെ അതെ അ അ ആ ആ ആ ശരി ആ